വ്യായാമങ്ങളിൽ യോഗ മെയിൻ ആയിട്ട് നോക്കുകയാണ് പറഞ്ഞാൽ അത് രണ്ടും രണ്ട് തരത്തിലുള്ള ഒരു പരിപാടിയാണ് വ്യായാമം എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ട് അതായത് ബോഡിയുടെ പുറത്ത് അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമാണ് കൂടുതലായിട്ട് അതിന് ഉപയോഗം ഉണ്ടാവുക അതിൻ മറിച്ച് യോഗ നോക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടിലും ഇന്റേണൽ ആയിട്ട് നമുക്ക് അകത്തും ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും നമുക്ക് ഉപയോഗപ്രദമായ ഒരു പരിപാടിയാണ് യോഗ യോഗ ഉപയോഗിച്ചിട്ട് നമുക്ക് യോഗ ചെയ്യുന്ന സമയത്ത് മെന്റൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും അതുപോലെ ടെൻഷൻ പിന്നെ നമുക്ക് എന്തെങ്കിലും തലവേദന അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും ഈ ശ്വാസഗതിയിലൊക്കെ ഇപ്പോൾ നമുക്ക് ശ്വാസംമുട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കുറേ മാറ്റം വരാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് യോഗ വ്യായാമം എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കൈ വേദന കാൽ വേദന അങ്ങനത്തെ എന്തെങ്കിലും ഇതോ അല്ലെങ്കിൽ ബോഡി കുറച്ചുംകൂടി ഫിറ്റ് ആക്കാൻ അങ്ങനത്തെ പരിപാടിക്കാണ് നമ്മൾ വ്യായാമങ്ങൾ കൊണ്ട് നമുക്ക് കൂടുതൽ ഉപയോഗം ഉള്ളത് അതിൻ മറിച്ച് ഈ യോഗ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമുക്ക് രണ്ടും കൈകാൽ പുറത്തുള്ളത് ആയാലും അകത്തുള്ളത് ആയാലും രണ്ടിനും പറ്റുന്ന ഒരു പരിപാടിയാണ് യോഗ പിന്നെ നമ്മള് യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം എത്ര പതുക്കെ സമയമെടുത്ത് ചെയ്യണ അതാണ് അത്രയും നല്ലതായിരിക്കും വ്യായാമം നമ്മൾ കുറച്ച് സ്പീഡിൽ ചെയ്യണ പരിപാടിയാണ് അതുപോലെ യോഗ എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മള് സമയമെടുത്ത് നമ്മൾ അതിന്റെ കറക്ട് രീതിയിലാണ് ചെയ്യേണ്ടത്